മലയാളത്തിലെ സാഹിത്യകാരന്മാരെന്ന് പറയുമ്പോൾ എനിക്ക് പ്രിയങ്കരമായി എൻ്റെ മനസ്സിലോടിവരുന്നത് കുമാരനാശാൻ വള്ളത്തോൾ വയലാർ രാമവർമ്മ ഇവരുടെ എല്ലാം കൃതികളും കാര്യങ്ങളുമെല്ലാം വളരെ മികച്ച ഒരു മലയാളത്തിലെ ആചാര്യന്മാരെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനാവുന്നതാണ് ഇവരുടെ കൃതികളും കഥകളും കവിതകളും എല്ലാം നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലേ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ ഓരോ കൃതികളും നമുക്ക് വായിക്കാനായിട്ട് അവസര വേദ്യമാകുന്നതാണ് ഒ എൻ വി കുറുപ്പ് എന്നു പറയുന്ന ആൾ മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വത്തു തന്നെ ആയിരുന്നു അത് ആളുടെ ആളുടേയും ഇതുപോലത്തെ കൃതികളും കഥകളും നമുക്ക് ഒത്തിരി ഇൻസ്പയറിങ്ങാണ് അതു നമ്മളെ ഒത്തിരി ഇൻസ്പർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്ക് ഒരു ചരമഗീതം എന്നു പറയുന്ന ഒരു കവിതയുണ്ട് അതിൽ ഭൂമിയുടെ ഭൂമിയുടെ അവസാന തുള്ളി രക്തവും വറ്റി അതിലെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുന്നതായ രീതിയിൽ ഭൂമിക്കൊരു ചരമഗീതം പാടുകയാണ് ഒ എൻ വി നമുക്ക് അതിലൂടെ നമുക്ക് വലിയൊരു സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കൃതികളുമായി പറയാൻ പറ്റും കുമാരനാശാൻ്റെ നളനും ദമയന്തിയും കാര്യങ്ങളുമെല്ലാം വരുന്നത് നമുക്കൊരു വേറൊരു ദൃശ്യ സാഹിത്യം തന്നെ നമുക്കതിലൂടെ ലഭിക്കുന്നുണ്ട് നമുക്ക് ആ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെ അതിലെ കഥാപാത്രങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് അതിലൂടെ ഓരോ അവരെ നമുക്ക് ദൃശ്യവൽക്കരിക്കാനും ഓരോ കവിതയിലൂടെയും ഓരോ വരികളിലൂടെയും നമുക്ക് സാധിക്കുന്നുണ്ട് അവയെന്നും നമുക്ക് ഒരു മലയാളത്തിൻ്റെ പുതിയൊരു ഉണർവ് അല്ലെങ്കിൽ ഒരു മലയാളത്തിൻ്റെ പഴയ ഒരു തനിമ ഇന്നും നിലനിർത്തുന്ന ഒരു ഓരോ ഓരോ കൃതികളായി നമുക്കതിനെ വിശേഷിപ്പിക്കാൻ ആവുന്നതാണ് അപ്പം കുമാരനാശാൻ ഒ എൻ വി കുറുപ്പ് വള്ളത്തോൾ നാരായണമേനോൻ ഇവരെല്ലാവരും തന്നെ മലയാളത്തിൻ്റെ ഓരോ സാഹിത്യകാര്യങ്ങളുമായി നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓരോരോ കാലഘട്ടത്തിലെ ഓരോരോ ജീവിത സാഹചര്യങ്ങളും ജീവിത അവസ്ഥാന്തരങ്ങളും നമുക്ക് എപ്പോഴും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ തന്നെ വായനക്കാരുടെ മനസ്സിലൂടെ ഉടനീളം എന്നും ജീവിച്ചിരിക്കുന്ന കലാകാരന്മാർ തന്നെയാണ്